ആ നമ്മളിപ്പോൾ വഴിയെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നിപ്പോൾ പാലക്കാട് നിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് പാലക്കാട് മറ്റേ മണ്ണാർക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ പിന്നങ്ങനെ കാസർഗോഡ് അങ്ങനെ ആണ് നമ്മുടെ സാധാരണ റൂട്ട്

നമ്മളിപ്പോൾ ഒരു ഒമ്പതര ഏകദേശം ഒമ്പത് മുക്കാലോടുകൂടി വണ്ടി എടുക്കും റെഗുലർ ടൈം ആണ് ഒമ്പത് മുക്കാലിന് എടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്നര നാല് മണിയൊക്കെ ആകുമ്പോഴേക്കും കാസർഗോഡ് എത്തും വഴിയിൽ ബ്ലോക്കും ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ കാസർഗോഡ്

ആ നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ നിർത്തും പിന്നെ ഇടയ്ക്കൊരു പതിനൊന്നു മണിക്ക് ചായക്ക് നിർത്തും ആ പിന്നെ രണ്ടു മണിക്ക് ഒന്ന് ചവിട്ടും അത് മൂന്ന് സ്റ്റോപ്പ് ആണ് ഇടയിലുള്ളത് പിന്നെ പാസ്സഞ്ചേർസ് കയറാൻ ആയിട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ആകെ മെയിൻ പോയന്റ്സ് മാത്രമേ ഉള്ളു ഏകദേശം ഇപ്പോൾ ഇവിടെ നിന്ന് പാലക്കാട് വിട്ടാൽ പിന്നെ മലപ്പുറം പിന്നെ കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി ചിലപ്പോൾ ഒന്ന് നിർത്തും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ലിസ്റ്റ് നോക്കിയിട്ടില്ല ട്രാവൽ ലിസ്റ്റ് നോക്കിയാലേ അതിൻ്റെ അറിയാൻ പറ്റുളളു ആ ഡെയ്ലി പോകും ഇന്നിപ്പോൾ രാവിലെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഡേ ആണ് അതു കഴിഞ്ഞാൽ അടുത്ത ഡേ ഓഫ് ആണ് ഇന്ന് കഴിഞ്ഞാൽ ഞാൻ നാളെ ഓഫ് ആയിരിക്കും മറ്റന്നാൾ മറ്റന്നാൾ വീണ്ടും നാളെ വേറെ ഡ്രൈവർ ആയിരിക്കും ഇന്നിപ്പോൾ പോയി നാലു മണിക്കവിടെ എത്തി ആ ആ ഞാനൊരു ഏകദേശം ഒരു ആറേഴു മാസത്തോളം ആയി

അവിടെ കണ്ണൂർ കാസർഗോഡ് കുഴപ്പമില്ല കാരണം കാസർഗോഡ് മാത്രമേ കുറച്ച് അറിയുളളു അവിടെ ഏരിയ അത്രയ്ക്കങ്ങ് പരിചയം ഇല്ല എന്നാലും നമ്മൾ പോയി അടുത്ത് തന്നെയാണ് നമുക്കവിടെ റൂമും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അവിടെ അങ്ങനെ കാണാനുള്ള സമയം ഒന്നും കിട്ടില്ല എന്നു വച്ചു കഴിഞ്ഞാൽ നാലു മണിക്ക് ഇവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ നാല് മണിക്കവിടെ എത്തി ഒരൊന്നൊന്നര മണിക്കൂർ ആ ഒന്നര മണിക്കൂർ മാക്സിമം നമുക്ക് അവിടെ ടൈമ് കിട്ടൂള്ളൂ നാലര ആ ആറ് ആറര ആറ് മണിയാകുമ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് വണ്ടി സ്റ്റാന്റിലേക്ക് വന്ന് സ്റ്റാന്റിൽ ഇടണം ഒരു ആറര അറേമുക്കാൽ ആകുമ്പോൾ എടുക്കും അവിടെ നിന്ന് തിരിച്ച് ആറേമുക്കാൽ അല്ലെങ്കിൽ ഏഴു മണിയോടുകുടി എന്തായാലും എടുക്കും മാക്സിമം ഏഴു മണിയാകുമ്പോഴേക്കും എടുക്കും ഏഴു മണിക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തിരിച്ച് കാലത്ത് പുലർച്ചെ എത്തും പുലർച്ചെ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഞാൻ അവിടെ ചെന്നിട്ടൊരു ആളെ പരിചയപ്പെടുത്തിത്തരാം നമുക്ക് അവിടുത്തൊരു ഡ്രൈവർ ഉണ്ട് ആൾ നാളെ ഓഫ് ആയിരിക്കും ആള് അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിത്തരും ആൾ ഈ പാർട്ട് ടൈം പോലെ ഗൈഡ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അയാൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിത്തരും നല്ല ആൾ തന്നെയാണ് വിശ്വസിക്കാൻ പറ്റിയ ആൾ ആണ് അതെ വേറെ എന്തെങ്കിലും പഠിക്കാൻ ആയിട്ടു പോവുകയാണോ ആ ഓക്കേ ഓക്കേ ശരി ശരി ശരി